ഹലോ ഇത് സാമ്പത്തിക ഉപദേഷ്ടാവല്ലേ കഴിഞ്ഞ മാസത്തെ നമ്മുടെ കറണ്ട് ബില്ലിലോട് അനുബന്ധിച്ചിട്ടായിരുന്നു ഞാൻ വിളിച്ചിരുന്നത് കഴിഞ്ഞ മാസത്തെ എൻ്റെ ഗാർഹിക ചിലവുകളൊക്കെ വളരെയധികം നല്ല തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ഞങ്ങൾ എന്താണെന്ന് അറിയില്ല ഞാൻ കഴിഞ്ഞ മാസത്തെ അത്രയൊന്നും എന്ത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ എൻ്റെ വൈദ്യുതി ബില്ല എന്ത് ഭയങ്കര നല്ല തോതിൽ എന്തായിട്ടുണ്ട് അധികരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ സേവിങ്സിനുള്ള സാധ്യതയായിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും വല്ല മേഖലകളൊക്കെ എനിക്ക് പറഞ്ഞു തരണം കാരണം ഈ അടുത്ത മാസത്തൊന്നും എ എനിക്ക് ഇല്ലാത്ത വളരെ വലിയൊരു ചിലവാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു സ ഒരു ഉപദേഷ്ട്ടാവാണെന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ വല്ല മാർഗ്ഗവും അതിന് നിങ്ങൾ ഒരു ഒരു വേറൊരു മാർഗ്ഗം എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റുമോ ഞാൻ ഇപ്പോൾ ഈ അടുത്തായിട്ട് വളരെയധികം നല്ല എന്ത് വൈദ്യുതിയിൽ നല്ല വൈദ്യുതി ബില്ലുകളൊക്കെയുണ്ട് നല്ല അധിതീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഇതിന് കണ്ടിട്ട് ഇറങ്ങണം കാരണം ഈ അടുത്തൊന്നും ഇല്ലാത്ത വലിയ ഒരു ചിലവ് തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമത് എങ്ങനേലും കുറയ്ക്കാൻ ഉള്ള വല്ല മേഖലകൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ് തരാൻ പറ്റുമോ കാരണം ഞാൻ ഒരു വളരെ എന്ത് കഷ്ടിച്ചാണ് എൻ്റെ ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രൂപത്തിലുള്ള ചിലവുകളൊക്കെ എനിക്ക് വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന വല്ലതും സഹായം ചെയ്തിട്ട് നിങ്ങൾ വല്ലതും മാർഗ്ഗങ്ങൾ എന്നും സഹായിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഏത് നിമിഷത്തിൽ എന്ത് എൻ്റെ ചിലവുകൾ എങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് യൂ സാർ എന്നെ ഈ സമയം എനിക്ക് വേണ്ടി മാറ്റി വച്ചതിന് താങ്ക് യൂ